ഞങ്ങളുടെ പ്രദേശത്ത് ആഴ്ചയിൽ ഒന്ന് ബുധനാഴ്ച ചന്ത നടത്താറുണ്ട് അന്ന് നല്ല ക്വാളിറ്റി കൂടിയ സാധനങ്ങൾ തന്നെയാണ് കൊണ്ടു വരുന്നത് അത്യാവശ്യം വിലക്കുറവുണ്ട് ഒരുപാട് ആളുകൾ അന്ന് സാധനങ്ങൾ വാങ്ങാൻ വരും നല്ല സൗകര്യമുള്ള ഒരു ചന്തയാണ് ഇഷ്ടം പോലെ ഇടയും നല്ല വൃത്തിയുള്ള പരിസരവും അന്തരീക്ഷവും നല്ല രീതിയിൽ ഇടപെടുന്ന ആളുകളുമാണ് അവിടെ ഉള്ളത് ആഴ്ചയിൽ ഒരു ദിവസം ചന്ത നടത്താറുണ്ട് നല്ല രീതിയിലാണ് മാർക്കറ്റ് മുമ്പോട്ട് പോകുന്നത് എല്ലാ തരം പച്ചക്കറികൾ പഴങ്ങൾ അതുപോലെ തുണിത്തരങ്ങളുള്ള ചന്തകളുണ്ട് പിന്നെ മത്സ്യം മാംസ്യം എല്ലാം എല്ലാ ഐറ്റംസും കിട്ടുന്ന ചന്തയാണ് നടത്താറുള്ളത് നല്ല രീതിയിൽ അത് അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നുണ്ട് നല്ല വിലക്കുറവുണ്ട് സാധാരണക്കാർകൊക്കെ കൂടുതൽ കൂടുതൽ സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള റേയ്റ്റ് ഒക്കെയെ ഉള്ളൂ എല്ലാവർക്കും നല്ല രീതിയിൽ അത് ഉപയോഗപ്രദമാണ് പിന്നെ മറ്റ് കാര്യങ്ങളൊന്നുമില്ല അത്യാവശ്യം നല്ല രീതിയിൽ പോകുന്ന ഒരു ചന്ത തന്നെയാണ് ഞങ്ങൾക്ക് ഇവിടെ ഉള്ളത്